ആ ഇത് ആ ഇത് ഞാൻ ആൻമേരിയാണ് ഇത് ആര്യാസ് ഡയറി ഫാം അല്ലേ ആ ഓക്കേ എനിക്ക് എന്താണ് പറയുക കുറച്ച് ദിവസമായിട്ട് കുറച്ച് കസ്റ്റമേഴ്സ് ഇങ്ങനെ ഡയറി പ്രൊഡക്റ്റ്സ് അന്വേഷിച്ച് എൻ്റെ കടയിൽ വരുന്നുണ്ട് അപ്പം അവർക്ക് എന്താണ് പറയുക നല്ലൊരു ഫാമിൽ പ്രൊഡ്യൂസ് ചെയ്ത സംഭവങ്ങളാണ് അവർ അന്വേഷിക്കുന്നത് അപ്പം ഞാൻ നിങ്ങളുടെ ഫാം നല്ലതാണെന്നറിഞ്ഞു അപ്പോൾ അങ്ങനെയാണ് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ സെൽ ചെയ്യുന്ന പ്രൊഡക്റ്റ്സിൽ ഇപ്പോൾ ബെസ്റ്റ് സെല്ലർ ആയി പോവുന്ന നല്ല പ്രൊഡക്റ്റ്സ് എന്തൊക്കെയാണ്

ആ ഇപ് ആ ഞങ്ങളിപ്പം ഐസ്ക്രീംസ് ആണ് കൂടുതൽ നോക്കുന്നത് കാരണം കുട്ടികൾ ഒരുപാട് നമുക്ക് കസ്റ്റമേഴ്സ് ആയിട്ട് വരുന്നുണ്ട് ഞങ്ങളുടെ എൻ്റെ കട എന്ന് പറയുന്നത് ഒരു സ്കൂളിൻ്റെ അടുത്താണ് അപ്പോൾ നമുക്ക് കുറേ കുട്ടികൾ വരുന്നുണ്ട് അപ്പം അവർ പല ഫ്ലേവേഴ്സ് ഉള്ള ഐസ്ക്രീം ആണ് അവർ ചോദിക്കുന്നുണ്ടായിരുന്നത് പിന്നെ ചില വീട്ടുകാർ വന്ന് ഇങ്ങനെ പാലും ബട്ടറും ചീസ് ഒക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ കൂടുതൽ ഐസ്ക്രീം ആണ് അപ്പം എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് മന്ത് തൊട്ട് ഞാൻ ഓർഡർ പ്ലേസ് ചെയ്യാം ഓക്കേ അല്ലേ ആ ബേസിക്കലി എനിക്ക് തോന്നുന്നു ഇപ്പം അന്വേഷിച്ച് വന്നതിൽ സാധാ നമ്മുടെ ബേസിക് ഫ്ലേവേഴ്സ് ആണ് ചോക്ലേറ്റ് വാനില ബട്ടർസ്കോച്ച് സ്പാനിഷ് ഡിലൈറ്റ് അങ്ങനത്തെ ഒക്കെയാണ് കൂടുതൽ പോവുന്നത് പിന്നെ ഞാനൊരു എന്താണ് പറയുക നമ്മുടെ കസ്റ്റമേഴ്സിനോട് ചോദിച്ചിട്ട് ഇനി എന്തെങ്കിലും കുറച്ച് എന്തെങ്കിലും വേറെ ഫ്ലേവേഴ്സ് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അതും ഞാൻ പ്ലേസ് ചെയ്യാം അപ്പം നെക്സ്റ്റ് മന്ത് തൊട്ട് വേണ്ടി വരുള്ളൂ ആ അപ്പം എന്തെങ്കിലുമുണ്ടെങ്കിൽ ഞാൻ പിന്നീട് കോൺടാക്റ്റ് ചെയ്യാം ആ ഓക്കേ ഓക്കേ ആ അപ്പം ഞാൻ പിന്നീട് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ഓക്കേ താങ്ക് യൂ